അല്ല തടിയാണ് ആണോ ആ ആ ആ

മ്മ് നിങ്ങൾക്ക് തടീ ഏതു തടിയാണ് വേണ്ടത് നിങ്ങൾക്ക് നമുക്കിപ്പോൾ ഇപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളതെന്നു പറയാനായിട്ട് തേക്കിൻ്റെ ഉണ്ട് ഈട്ടിത്തടി ഉണ്ട് മഹാഗണിയുണ്ട് പിന്നെ കുറഞ്ഞ തോതിൽ പോകുന്ന നമുക്ക് പ്ലാവ് ആഞ്ഞിലിയുണ്ട് ആഞ്ഞിലിയുണ്ട് അതുപോലെതന്നെ നമുക്ക് പിന്നെ ഈ പിന്നെ ഇപ്പം മാവിൻ്റെയുണ്ട് ഇങ്ങനെ പലതൊക്കെ കുറഞ്ഞത് നമുക്ക് പോകുന്നതാണ് മഹാഗണി ഓടും മഹാഗണിയേക്കാളും കൂടുതലായി നമുക്ക് പോകുന്നത് ഈട്ടിയും തേക്കുമാണ് അതാകുമ്പോൾ നല്ല ഇതാണ് ആ ആ ഈട്ടി ഉപ്പ് തേക്കുമുണ്ട് പിന്നെ എല്ലാ നമ്മുടെ ഇവിറ്റെ നാടൻ തേക്കുമൊക്കെയുണ്ട് അവിടെ നമ്മൾ എടുത്തു ചെയ്യുന്നതാണ് ഇതെല്ലാം നല്ല തടിയാണ് ആ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അപ്പം നിങ്ങൾ വന്നത് നമുക്കൊന്ന് ആ മാഡം ഒക്കെ മാഡം വരണം മാഡം വന്ന് അതു കണ്ടു കഴിയുമ്പോൾ ഞങ്ങളത് റെഡിയാക്കി തരും മുറിച്ച് വെട്ടിയത് നമ്മൾ അതു ചെയ്ത് നിങ്ങൾക്ക് എന്തോരമാണ് വേണ്ടത് എന്നറിയേണ്ടത് അത് എന്തോരം വേണം എന്നുള്ളത് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളത് ചെയ്ത് എടുത്തു തരുന്നതാണ് അതു സെയിൽ ആക്കിത്തരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല പിന്നെ നിങ്ങൾ വന്നത് എടുത്തതു കൊണ്ട് പോകുകയാണെങ്കിൽ അപ്പം വില വ്യത്യാസങ്ങൾ വരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റക്കുറെ വില ആ അപ്പോൾ അതിന് ആ വണ്ടിയുടെ ചാർജ്ജെലാം ആ വണ്ടിയുടെ ഇതെല്ലാം വേണം പിന്നെ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വില വ്യത്യാസങ്ങൾ വരും അപ്പം അതിൻ്റെ അനുസരിച്ചു വേണം നമുക്കത് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ മുറിച്ച് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്കു തരാം നിങ്ങൾക്ക് വണ്ടിയും കൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കാതലൊക്കെ ഉള്ള അല്ല നിങ്ങൾ നോക്കൂ നല്ലയല്ല നിങ്ങൾക്കത് വന്ന് ഇല്ല ഇല്ല വെളളയൊന്നുമില്ല നമുക്കത് നിങ്ങളുടെ അടുത്ത് കാതൽ തന്നെയുള്ള സാധനമാണ് നല്ല ഐറ്റം ആണ് നല്ല തടിയാണ് അത് നല്ല ഈട്ടിയുടെയുണ്ട് തേക്കിൻ്റെയുണ്ട് എല്ലാം ഉണ്ട് നല്ല നല്ല ഒരു അല്ലല്ല അല്ല നല്ല മൂത്ത തടികളാണ് അതൊരുപാട് ഇതായതാണ് ആ ആ അത് നിങ്ങൾക്കതു പോലെ ആ അത്രയേ ഉള്ളു അതേ അതേ നമുക്കത് നല്ലതാണ് നല്ലതായിട്ട് പോകും നമ്മളും ചെയ്യുന്നുമുണ്ട് നമുക്ക് ഫർണിച്ചർ കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട് അതായത് നിങ്ങൾക്ക് ഫർണിച്ചർ ഏതാണോ വേണ്ടത് എന്നു വെച്ചാൽ കട്ടിലായിട്ടുണ്ട് സെറ്റിയായിട്ടുണ്ട് ടീപ്പോയായിട്ടുണ്ട് എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്കുണ്ട് കോണർ സ്റ്റാൻഡ് വേണേ അങ്ങനെ വേണോ ഏത് ഐറ്റം ആ അലമാര ഉണ്ട് ആ ഉണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഏതു വേണമെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലല്ലേ നിങ്ങൾക്ക് ഫർണിച്ചറായിട്ട് മതിയെങ്കിൽ ഞാൻ ചെയ്തു തരാം അതല്ല തടി തന്നെ മതിയെങ്കിൽ തടിയിലോട്ടു ചെയ്തു തരാം അതു നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ഓഡർ താ അന്നേരം അതനുസരിച്ച് ചെയ്തു തരണമെങ്കിൽ താമസം വരുമല്ലേ അതല്ല തടി തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ അറപ്പിച്ച് നിങ്ങൾക്കു വേണമെങ്കിൽ അപ്പം ആശാരിയോട് ഞങ്ങൾ ആ ആ അന്നേരം തടി ആയിട്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തടിയായിട്ട് ഉടാം അതല്ല അറുപ്പിച്ച് ഞങ്ങൾ തന്ന് വിടണമെന്നുണ്ടെങ്കിൽ അറുപ്പിച്ച് തന്നു വിടുകയും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് ഏത് ആ ആ ആ ആ ആ അപ്പോൾ വന്നു നോക്ക് കേട്ടോ ആ ശരി എന്നാൽ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ